സംസ്കൃതവും മലയാളവും വ്യാകരണ നിയമങ്ങളിൽ വളരെ അധികം സാമ്യങ്ങളുണ്ട് സംസ്കൃത വ്യാകരണത്തിൻ്റെ പല ആശയങ്ങളും മലയാള വ്യാകരണത്തിലും ഉണ്ട് മറ്റേതൊരു ഇന്ത്യൻ ഭാഷകളോളം മറ്റേതൊരു ഇന്ത്യൻ ഭാഷകളെക്കാളും മലയാളത്തിന് സംസ്കൃതവുമായി വളരെ ശക്തമായ ബന്ധമുണ്ട് സംസ്കൃതത്തിലെ പല വാക്കുകളും മലയാളത്തിലും കടമെടുത്തിട്ടുണ്ട് നമ്മൾ സംസാരിക്കുന്ന പല വാക്കുകളും സംസ്കൃത് സംസ്കൃതത്തിൽ നിന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള ബന്ധം നമ്മൾ പല ഇംഗ്ലീഷിലുള്ള പല വാക്കുകളും നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഇംഗ്ലീഷിലെ പല വാക്കുകളും ഒരു ഒരാൾ പരസ്പരം കാണുമ്പോൾ അഭിസംബോധന ചെയ്യുന്ന ഹലോ വരെ ഹലോ മുതൽ തുടങ്ങുന്ന വാക്ക് വരെ ഇംഗ്ലീഷിൽ നിന്നുള്ള വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള ബസ്സ് കാർ ഹലോ സോറി അങ്ങനെയുള്ള മുതലായ വാക്കുകളെല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് കടമെടുത്തിരിക്കുന്നതാണ്

ഈ മലയാളഭാഷയും മറ്റ് സംസ്ക സംസ്കൃതം ഇംഗ്ലീഷ് പോലെയുള്ള വാക്കുകളുമായിട്ട് നല്ല ബന്ധമുണ്ട്